ഹലോ ഹലോ ആഹാ സാറേ ഞാനിവിടെ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റാണ് ഞാൻ ഇവിടെ ഈ സ്ഥലത്തുള്ള കേരളത്തിലുള്ളതല്ല പിന്നെ ഈ കേരളത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ പല ട്രീറ്റ്മെൻ്റിനെക്കുറിച്ചും കേട്ടത് അപ്പം സാറിൻ്റെ സാറ് നല്ല തിരു വിദഗ്ദ് വർഷങ്ങളായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് മുട്ടിന് ഭയങ്കര വേദനയാണ് അപ്പം ഈ സ്റ്റെപ്പൊക്കെ കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത് തിരുമ്മലിലൂടെ മാറുമോ എന്നറിയാൻ വേണ്ടയിട്ടാണ് ഞാൻ വന്നത് സാറിനെ വിളിച്ചത് ഓക്കേ പത്തൂ ദിവസം ആ ആ ആ സാറേ അങ്ങനെ വല്ല കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ഇപ്പം ഈ ഇത് ആയുർവേദമാണല്ലോ അപ്പം ഇതിന് പത്ത്യമോ അങ്ങനെ വല്ല കാര്യങ്ങൾ വല്ലതുമുണ്ടോ

കാലിൻ്റെ മുട്ടിനാണ് ഈ സ്റ്റെപ്പൊന്നും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെ ആ

ഏകദേശം റേറ്റ് ഏകദേശം റേറ്റ് ഇപ്പോൾ എത്രയാവും ഒരു ലക്ഷമോ അയ്യോ അത്രയും പൈസ കയ്യിലില്ല ആ സാരമില്ല നോക്കട്ടെ സാറേ കുഴപ്പമില്ല ഇപ്പം ഞാൻ ഓക്കേ ആ ശരി ശരി സാർ ഓക്കേ സാർ എനിക്ക് അങ്ങോട്ടുള്ള വഴി കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോഴൊന്ന് റൂട്ട് മാപ്പിടുകയോ അല്ലെങ്കിലൊന്ന് ആ ഓക്കേ ഓക്കേ എന്നത്തേക്കാണ് സാറേ ഓക്കേ ഓക്കേ ആ ഇത് ഇത് സൈഡ് എഫ്ഫെക്റ്റൊന്നും ഉണ്ടാക്കുന്ന മരുന്നല്ലല്ലോ അല്ലേ ഈ ഓക്കേ ഈ പത്തു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റോ കാര്യങ്ങളോ വല്ലതും കാണുമോ ഓക്കേ ശരി എന്നാൽ